മുമ്പത്തെ നമ്മുടെ ഗ്രാമങ്ങളിൽ ഉള്ള വീടുകൾ ഇപ്പോഴത്തെ വീടുകളും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട് മുൻപ് എന്ന് പറഞ്ഞ്കഴിഞ്ഞാൽ നമ്മുടെ മണ്ണുകൊണ്ട് ചുമര്കെട്ടി അതിന്റെ മുകളില് ഓല പോലെ ഓലകൊണ്ട് ഒരു മേൽക്കൂര പണിത് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ചെറിയൊരു വീട് അത്രയേ ഉള്ളൂ ആ വീട്ടിലാണെങ്കിൽ വീടുകളിൽ പറയണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലെ കിടക്കാനുള്ള സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം പുറത്തന്നെയായിരിക്കും ഇപ്പോൾ കക്കൂസ് ആണെങ്കിലും അടുക്കളയാണെങ്കിൽ അടുക്കളയ്ക്ക് പുറത്ത് ഒരു അടുപ്പ് കെട്ടി വീടിനോട് ചേർന്ന് തന്നെ പുറത്തൊരു അടു അടുക്കള കെട്ടി അങ്ങനെയാണ് അതുപോലെ കക്കൂസ് എന്ന് പറഞ്ഞാലും പുറത്തായിരിക്കും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വീടുകൾ എന്ന് പറയുമ്പോൾ അത്ഇതിൽ നിന്നെല്ലാം നല്ല വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെ വീടുകൾ വയ്ക്കാൻ പോകുന്ന സമയത്ത് തന്നെ നല്ല ആദ്യം നല്ലൊരു അടിത്തറ അല്ലെങ്കിൽ അതിന് നല്ല ഒരു ബെയ്സ്മെന്റ് പണിയും അതിനാദ്യം നല്ല കല്ല് കൊണ്ടുവന്നിറക്കി ആദ്യം നമ്മുടെ വാ വാ വാസ്തു വന്ന അതിൻറെ കാര്യങ്ങളൊക്കെ നോക്കി അവര് അതിന്റെ എങ്ങനെയാണ് കുറ്റിയടിക്കൽ കുറ്റിയടിക്കൽ കാര്യങ്ങൾ അത് നോക്കി അതിനെ ബെൽറ്റ് വാർപ്പ് അടിച്ചു നമ്മുടെ കല്ലുകൊണ്ട് കെട്ടും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്രാമപ്രദേശങ്ങൾ ആയതുകൊണ്ട് അധികം ഭൂമി കുലുക്കം അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും വരില്ല പക്ഷേ നമുക്ക് ഇവിടെ പന്നി ശല്യം ഉണ്ടാവും അപ്പോൾ മണ്ണ് കൊണ്ടാണെന്ന് പറയുമ്പോൾ അവര് നമ്മുടെ തറമാന്താനും അങ്ങനത്തെ കാര്യങ്ങൾക്കോക്കെ പ്രശ്നങ്ങൾ ഇണ്ടാവും അതുകൊണ്ട് അടിയിൽ നല്ല കല്ലിട്ട് കെട്ടി എന്നിട്ട് അതിൻറെ ബേസ്മെൻറ് സ്ട്രോങ്ങ് ആക്കും അതുകഴിഞ്ഞിട്ട് മുകളിലേക്ക് എങ്ങനെയാണോ പ്ലാൻ അനുസരിച്ച് നമ്മളെവെട്ടുക്കല്ലാണെങ്കിൽ വെട്ടുകല്ല് ചെങ്കല്ല് ആണെങ്കിൽ ചെങ്കല്ല് ഇപ്പോൾ ചെ വെട്ടു കല്ല് ആണ്ന്ന് പറയുമ്പോ നല്ല തണുപ്പ് കിട്ടും ഇവിടെ സാധാരണ നമ്മുടെ ചെങ്കല്ല് കൊണ്ട് ഒക്കെയാണ്കെട്ടാറ് വെട്ടുകല്ല് ആണെങ്കിലും കുഴപ്പമില്ല അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ കാലാവസ്ഥ വെച്ച് നോക്കാന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളില് മഴ അല്ലെങ്കിൽ ഏകദേശം എല്ലാ കാലാവസ്ഥയും ഒരേ പോലെ ഉള്ളതാണ് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതിൻറെ കാര്യങ്ങൾ ഒന്നും വരില്ല പിന്നെ അടു നമ്മളെ മിക്കവാറും എല്ലാ വീടുകളിലും ചെറിയൊരു പൂജാമുറിപോലത്തെ കാര്യങ്ങൾ ഉണ്ടാവും ഫ്രണ്ടിൽ ഒരു ഹോള് പിന്നെ അതുകഴിഞ്ഞാൽ ഹോളിൽ നിന്ന് സിറ്റൗട്ട് ഹോള് അതുകഴിഞ്ഞ് വീട്ടിന്ഉള്ളിൽ തന്നെ രണ്ട് ബെഡ്റൂം ഉണ്ടാകും പിന്നെ ഒരു പൂജാമുറി ഉണ്ടാകും ബാത്റൂമിൽ ഉണ്ടാവും വീട്ടിന്റെ ഉള്ളിൽ തന്നെ രണ്ടുനിലആണ് എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു സ്റ്റെയർസ് അതൊരു കോണി പോലത്തെ ഒരു ഇതും വരും അങ്ങനെയാണ് ഇപ്പോൾ സാധാരണ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലെ നമ്മുടെ വീടുകളിൽ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ